എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച നക്ഷത്രം എന്ന് പറയുന്നത് ഓറിയോൺ ആണ് ഓറിയോൺ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആകാശത്തിൽ കുറേ നക്ഷത്രമുണ്ട് പക്ഷെ എന്നെ എന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ആകർഷിച്ച നക്ഷത്രമെന്ന് പറഞ്ഞാൽ ഓറിയോൺ ആണ് ഓറിയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മലയാള മീനിങ്ങെന്നു പറയുന്നത് വേട്ടക്കാരൻ എന്നാണ് ആ നക്ഷത്രത്തെ നമ്മൾ അറിയപ്പെടുന്നതെന്ന് പറയുന്നത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മൾ ആകാശത്ത് നിന്ന് എന്താ പറയുക കുറേ നക്ഷത്രങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ആങ്കിളിൽ ചേർന്ന് നോക്കുമ്പോൾ ഒരു ഷേപ്പ് ഉണ്ടാകും അതിന് വേട്ടക്കാരൻ്റെ ഷേപ്പ് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അതിന് ഇതിനാണ് നമ്മൾ ഓറിയോൺ എന്ന് പറയുന്നത് അത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ എന്ത് എന്താ പറയുക എന്തേരു ആ പേരു തന്നെ എന്ത് രസമുള്ള പേരാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ഓറിയോൺ എന്ന് പറയുന്നത് ആകാശത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഏങ്കിളിൽ ചെന്ന് നോക്കുമ്പോൾ തന്നെ അതൊരു വേട്ടക്കാരൻ്റെ ഷേപ്പ് പോലെയൊക്കെ കാണും എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ ഭയങ്കര ആകർഷകമായിട്ട് തോന്നിയൊരു നക്ഷത്രം എന്ന് പറയുന്നത് ഓറിയോൺ ആണ് അത് എപ്പോഴും എപ്പോഴും കാണണമെന്നില്ല എന്നാൽ ഇടക്കിടക്ക് നമ്മൾ ആകാശത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഭയങ്കര ആകർഷകമായൊരു കാഴ്ചയാണ് ഈ ഓറിയോൺ നക്ഷത്രത്തിൻ്റെയെന്ന് പറയുന്നത്